കേരളം സന്ദര്ശിക്കുമ്പോള് നമ്മളെ വിനോദസഞ്ചാരികള്ക്ക് പരീക്ഷിക്കാവുന്ന പ്രാദേശികമായ വിനോദരൂപങ്ങള് എന്ന് പറയുന്നുണ്ടെങ്കില് ഇപ്പോള് തെരുവ് പ്രകടനങ്ങള് ഒക്കെ കാണാം അതായത് തെരുവ് പ്രകടനങ്ങള് കാണുന്നതിലൂടെ മീന്സ് അവിടുത്തെ നമ്മളുടെ അവസ്ഥകളും മീന്സ് ഇവിടുത്തെ ആ ഒരു ആൾക്കാരുടെ അവസ്ഥകളും കാര്യങ്ങളും കാരണം അവരെന്നു പറഞ്ഞാല് നല്ല വലിയ അതീന്നും റിച്ച് ആ ഒരു സംഭവത്തിന്ന് ഒക്കെ ആയിരിക്കും വരുന്നത് അപ്പോള് ഇവിടെയുള്ള അവസ്ഥകളും കാര്യങ്ങളുമൊക്കെ അവര്ക്ക് തെരുവ് പ്രകടനങ്ങളിലൂടെ കാണാം അതുപോലെ തന്നെ അവരുടെ കഴിവുകളും കാര്യങ്ങളും ഒക്കെ ആ തെരുവു പ്രകടനങ്ങളില് അവർക്ക് കാണാം അതുപോലെ തന്നെ ഈ ആ വിഷു ഓണം ഓണത്തിന് ടൈമിലൊക്കെയാണ് വരുന്നത് എന്നുണ്ടെങ്കില് ഒരുപാട് സംഭവങ്ങള് കാണാം കാരണം പുലിക്കളി കാണാം അതുപോലെ തന്നെ തിരുവാതിര പിന്നെ എന്താ സദ്യ ഉണ്ണാം അപ്പോള് അങ്ങനെ കുറെ സംഭവങ്ങൾ മീന്സ് ഓണത്തിന്റെ കാലത്താണ് വരുന്നത് എന്നുണ്ടെങ്കില് അവര്ക്കു കാണാം അതൊക്കെ എന്ന് പറഞ്ഞാല് അവരെ സംബന്ധിച്ച് വലിയ സംഭവങ്ങൾ ആയിരിക്കും കാരണം കഥകളി നമ്മുടെ ദേശിയ ഇതാണ് കഥകളി എന്ന് പറയുന്നത് അപ്പോള് കഥകളി എന്നൊക്കെ പറയുന്നത് ഏതൊരു വിദേശികൾക്കും കണ്ടു രസിക്കാവുന്ന അല്ലെങ്കില് കണ്ട് ആസ്വദിക്കാവുന്ന ഒരു സംഭവം തന്നെയാണ് കഥകളി എന്നൊക്കെ പറയുന്നത് കഥകളിയൊക്കെ കാണുമ്പോള് അവര്ക്ക് വലിയൊരു അത്ഭുതം മാതിരിയായിരിക്കും അപ്പോള് കഥകളിയൊക്കെ വലിയ ഒരു സംഭവം തന്നെയാണ് അവര്ക്ക് അവര് വന്നതിന്റെ ആ ഒരു ഉദ്ദേശം ശരിക്കിനും ആ ഒരു കഥകളിലൂടെയും നമ്മളുടെ മലയാളി തനിമയുടെ ഓരോരോ സംഭവങ്ങള് കാണുമ്പോഴും ഓരോ പ്രാദേശികരൂപങ്ങളും അതുപോലെ തന്നെ പരമ്പരാഗത കലകളും ഒക്കെ കാണുമ്പോള് മനസ്സിലാക്കാം കഥകളി അതുപോലെ തിരുവാതിര പിന്നെ എന്താണ് പുലിക്കളി പിന്നെന്താണ് മോഹിനിയാട്ടം കുച്ചിപ്പുടി ഭരതനാട്യം ഇതുപോലെ ഒരുപാട് നമ്മളുടെ എന്താണ് കേരളത്തില് മാത്രം കാണാവുന്ന ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ ഉണ്ട് മീന്സ് നല്ല നല്ല കലകള് ഉണ്ട് അതൊക്കെ അവര്ക്ക് അതിൽ നിന്നും കണ്ടു മനസ്സിലാക്കാവുന്നതാണ് അപ്പോള് തെയ്യം തെയ്യമൊക്കെ പോലുള്ള അവര് എന്തായാലും അവര് അതില് അവരുടെ ഒരു എൻജോയ്മെന്റ് അവര് എന്തായാലും അതില് കാണിക്കും അപ്പോള് എന്നെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ അതായത് അവര്ക്ക് മനസ്സിലാക്കാനുള്ള ഓരോ കഥകളിയോടും അവർക്ക് മനസ്സിലാക്കാനുള്ളത് മനസിലാക്കാനുള്ളത് ഉണ്ടാകും ഒക്കെ ഉണ്ടാവും അപ്പോള് ഇതൊക്കെയാണ് എന്നെ സംബന്ധിച്ച് പരീക്ഷിക്കാവുന്ന ഒരുപാട് വിനോദരൂപങ്ങൾ എന്നു പറയുന്നത്